ഞാൻ മറ്റുള്ളവർ വയ്ക്കുന്ന അതേപടി രീതി പാചകം എന്റെ വീട്ടിൽ ഉണ്ടാക്കാറില്ല ഓരോ ദിവസം വ്യത്യാസപ്പെടുത്തിയാണ് ഞാൻ എന്നും കുക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ മീൻ കറി തേങ്ങ അരച്ച് വയ്ക്കുന്നതായിരുന്നു എനിക്കിഷ്ടം പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും മീൻ മുളക് ചാറ് വയ്ക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് ഞാൻ വയ്ക്കുന്നത് പിന്നെ തേങ്ങ വറുത്തരച്ച കറിയോട് ഇവിടെ ആർക്കും താല്പര്യം ഇല്ല അത് കാരണം തേങ്ങ വറുത്തരച്ച് തരിയും മര മസാലയൊക്കെ ഇട്ടാണ് ഞാൻ കറികൾ ഉണ്ടാക്കുന്നത് അതാണ് ഇവിടെ എല്ലാവർക്കും താൽപര്യം പിന്നെ എനിക്ക് പാലപ്പം ഒന്നും ഉണ്ടാക്കുന്നതിനോട് നേരത്തെ താൽപര്യം ഇല്ലായിരുന്നു ഇപ്പം പാലക്ക പാലപ്പം ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാറുണ്ട് കഴിക്കാറുണ്ട് അതുപോലെ ഇടിയപ്പം വട്ടയപ്പം അങ്ങനെയുള്ള പല ഐറ്റംസും ഇപ്പം ഉണ്ടാക്കാൻ പഠിച്ചു എല്ലാവർക്കും ഉണ്ടാക്കി തൃപ്തിപ്പെടുത്താറുണ്ട് പിന്നെ നേരത്തെ അരിപ്പൊടി അരി കൊണ്ടുള്ള പലഹാരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ എല്ലാം ഉണ്ടാക്കി മക്കൾക്കും കെട്ടിയവനും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും എല്ലാ രീതിയിലും എല്ലാം പഠിച്ചു ഉണ്ടാക്കാനായിട്ട് അതില് ഞാൻ വളരെ ഹാപ്പി ആണ് പൊതുവേ മൊത്തത്തിൽ പാചകത്തോട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ പാച്ചോറ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല ഫുഡ്ഡുകളും ഉണ്ടാക്കാറുണ്ട് ഉപ്പുമാവ് പായസം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റങ്ങളും വരുത്താറുണ്ട് എന്റെ ഇഷ്ടത്തിനും ഉണ്ടാക്കാറുണ്ട് മറ്റുള്ളവർ എന്താണ് അവർക്ക് ആഗ്രഹം അതും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്